കുട്ടിക്കാലത്ത് ഞാൻ കളിച്ചിരുന്ന കളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റ് ഒക്കെ കളിക്കുമായിരുന്നു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അക്ക് കളിക്കും സാറ്റ് കളിക്കാൻ നമ്മള് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോളാണ് അക്ക് ഒക്കെ കളിക്കാൻ പറ്റും വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാകും അവിടെ നമ്മള് കളം കളമൊക്കെ വരച്ച് നമുക്ക് ഇങ്ങനെ പണ്ടൊക്കെ ടൈൽ ഉള്ള വീടുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ വലിയ വീടുകളിലൊക്കെ ടൈൽ ഒക്കെ ഇടുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ചെറിയ പീസ് ഒക്കെ ഉണ്ടാകും ആ ടൈലുകൾ ഒക്കെ നമ്മള് സ്കൂളിലൊക്കെ കൊണ്ടുപോയി അവിടെ അതായത് നമ്മള് അതായത് ചോക്ക് അങ്ങനത്തെ കാര്യം കൊണ്ടുവന്ന് വലിയ കളം ഒക്കെ വരച്ച് കളത്തില് ഇങ്ങനെ ഓരോ ടൈലും ഇട്ട് ടൈലിൻ്റെ കഷ്ണം ഇട്ടിട്ടിങ്ങനെ ചാടി ചാടി ചാടി ഇങ്ങനെ കളിക്കും അതായത് വരയിൽ തട്ടാതെ ചാടിയിട്ടുണ്ടെങ്കില് അവര് ജയിക്കും അങ്ങനത്തെ കളിയാണ് കളിക്കുക പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് കള്ളനും പോലീസും പേപ്പറിൽ എഴുതി കളിക്കും സെറ്റ് ഒപ്പിക്കല് കളിക്കും അതായത് കിളികളെ പേരാണ് നാല് നാല് നാല് കിളികളെ പേര് എഴുതിയിട്ട് അത് സെറ്റ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ഒപ്പിക്കല് കളിക്കും അങ്ങനെ പല പല കളികളും ഉണ്ട് കളിക്കുന്നത്